എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ചാർജറാണ് അപ്പം ചാർജറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഞാന് എൻ്റെ ഫോണ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ചാർജർ ആയിരുന്നു ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് ചാർജ് കയറാനുള്ള ടൈമൊക്കെ ഭയങ്കര സീൻ ആയതുകൊണ്ട് തന്നെ അതില് ചാർജ് കയറാനൊക്കെ ഭയങ്കര താമസമായിരുന്നു അതിനെ തുടർന്നാണ് ഞാൻ വേറെ ചാർജറ് മേടിച്ചത് അപ്പോൾ ഞാനാദ്യം നോക്കിയപ്പോൾ വാൾട്ട് കൂടിയ ചാർജറായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തിട്ടാണ് ഞാനെടുത്തത് അപ്പോൾ അവര് പറഞ്ഞു ചിലപ്പോൾ ഫോണടിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എനിക്കതിൻ്റെ ഗുണങ്ങള് മനസ്സിലായത് കാരണം എനിക്ക് ആദ്യം ഫോണിലെ ചാർജർ ഫോണിൻ്റെ കൂടെ കിട്ടിയ ചാർജർനേക്കാളും എളുപ്പത്തില് ഇതില് ചാർജ് കയറുന്നുണ്ട് പിന്നെ ഇതെനിക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് നടക്കാനൊക്കെ എനിക്ക് പെട്ടന്ന് കഴിയുന്നുണ്ട് കാരണം ഇതിന് ഓവറ് വലിപ്പമോ കാര്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പോക്കറ്റിൽ ഇട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേബിളൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് കേബിളിന് കുഴപ്പമോ അങ്ങനൊന്നും വരുന്നൊന്നും ഇല്ല ഓൾമോസ്റ്റ് നല്ലൊരു ചാർജർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എളുപ്പത്തിൽ ചാർജ് കയറുന്നുണ്ട് കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല വൈറ്റ് കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ചാർജറ് തന്നെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇതിന് എളുപ്പത്തിൽ ചാർജ് കയറുന്നൊക്കെയുണ്ട് നല്ല ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്